ഇപ്പൊൾ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ കുട്ടികളും ഇപ്പൊൾ അങ്ങനെയുള്ള രീതിയിലേക്കാണോ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട് യോജിക്കുന്നു കാരണം കുറെ കുട്ടികളൊക്കെ എന്താ പറയുക വിദ്യാഭ്യാസം കഴിഞ്ഞാൽ വീടിന് അടുത്തുതന്നെ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് ജോലി ചെയ്യുകയാണ് സാധാരണ ചെയ്യാറ് കുറെ ആൾക്കാര് അവരുടെ എന്താ പറയുക ഫാമിലി ബിസിനസും നോക്കി മുന്നോട്ടു പോകുന്നവരുണ്ട് എന്നാൽ ബാക്കി എന്താ പറയുക താഴ്ന്ന ജാതി കുറെ സാമ്പത്തികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരൊക്കെ കൂടുതലായും ചെയ്യുന്നതെന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അന്യസംസ്ഥാനങ്ങള് അതായത് അന്യനാടുകളിൽ ഒക്കെ പോയിട്ട് അവിടെ പോയിട്ട് അത്യാവിശ്യം നല്ല സാലറി ബേസിൽ ഒക്കെ അവരെ അവരെ സംബന്ധിച്ച അത്യാവിശ്യം നല്ല സാലറി ഒക്കെ ഉള്ള ജോലികൾ തിരഞ്ഞെടുക്കുകയും അതിനെ തുടർന്ന് ബാക്കി എന്താ പറയുക ജോലികളൊക്കെ ചെയ്യുക അവരുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ചിട്ട് നല്ല ജോലി ചെയ്തു അത്യാവശ്യം പൈസ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് കൂടുതൽ ആൾക്കാരും ഇപ്പൊൾ എന്താ പറയുക ഇപ്പൊൾ പൊതുവെ നമ്മള് കണ്ടുവരുന്നത് എങ്ങനെ എന്നുവെച്ചാൽ ഐ എൽ ടി എസോ ജർമൻ ലാംഗ്വേജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുകയും അതിനുശേഷം പുറം രാജ്യങ്ങളിൽ പോയിട്ട് അവിടുന്ന് പണിയെടുത്ത് കിട്ടുന്ന കാശ് കൊണ്ടുവന്നിട്ട് സ്വന്തം നാട്ടിൽ വന്നിട്ട് നല്ല വീടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ജീവിക്കാനാണ് ആളുകൾ കൂടുതലും ഇപ്പോൾ പരിശ്രമിക്കുന്നത് നമ്മളെ പ്രദേശത്തും അങ്ങനെ തന്നെയാണ് ഞാൻ കാണുന്നത് കാരണം ഐ എൽ ടി എസ് ഇ ടി അങ്ങനത്തെ കോഴ്സുകൾ ഒക്കെ പഠിച്ച് എല്ലാവരും പുറം രാജ്യങ്ങളിലേക്ക് ഒക്കെ പോയി അവിടുന്ന് ജോലിയെടുത്ത് അത്യാവശ്യം ശമ്പളവും കാര്യങ്ങളൊക്കെ വാങ്ങാൻ ആണ് കൂടുതൽ ആൾക്കാരും ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നാണ് എൻറെ ഒരു ഇതിൽ തോന്നിയിട്ടുള്ള കാര്യം എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ചെയ്തുവരുന്നത്